നമ്മുടെ നാട്ടിലെ പ്രധാന ആദിവാസി മേഖലകൾ പിന്നെ ബ്രൈമോറ് വിധുര പൊന്മുടി ഇതൊക്കെയാണ് എനിക്കറിയാവുന്നത് പിന്നെ സംസ്ഥാനങ്ങളിൽ ഗോത്രങ്ങളെ കുറിച്ച് അധികം അറിഞ്ഞുകൂടാ പക്ഷേ എന്നാലും അട്ടപ്പാടീലൊക്കെ ഒരുപാട് ആദിവാസി ആൾക്കാർ ഒരുപാട് താമസിക്കുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യകരമായ എല്ലാ കാര്യങ്ങളും ഒരുപാട് പിന്നിലോട്ടാണ് റോഡിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലോട്ടാണ് അവരൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെ ആരോഗ്യ മേഖലയിലൊക്കെ ആശൂപത്രികളിൽ പോകാനും എല്ലാത്തിനും കാല താമസം റോഡൊന്നുമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയതു കൊണ്ട് അവർക്ക് ആശുപത്രിയിലൊക്കെ പോകാനൊക്കെ ഒരുപാട് താമസമാണ് പിന്നെ അതുപോലെ തന്നെ ശിശു മരണ നിരക്കൊക്കെ ഒരുപാട് കൂടുതലാണ് ആദിവാസി അമ്മമാർക്ക് സമയത്തിന് ഹോസ്പിറ്റലിൽ പോകാനും അവർക്ക് പോഷകകരമായ ആഹാരങ്ങളൊന്നും കഴിക്കാതെയൊക്കെ ധാരാളം കുഞ്ഞുങ്ങൾ പ്രസവത്തിൽ മരിച്ചു പോകുന്നതായിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കൊ കുറച്ച് കൂടുതലാദിവാസികളുള്ളത് വയനാട് ജില്ലയിലാണ് പി പിന്നെ